ഹലോ ഇത് ടി വി എം ഉള്ള വിമല ആയുർവേദിക് ഐ ഹോസ്പിറ്റലല്ലേ സൂര്യ ഡോക്ടർ ആണോ സംസാരിക്കുന്നത് ആ മാഡം ഞാൻ ആറ്റുകാലിൽ നിന്ന് അർച്ചനയാണ് വിളിക്കുന്നത് മാഡം എനിക്ക് ദൂരെ കാഴ്ച നല്ല കുറവാണ് മാഡം പിന്നെ അതു മാത്രല്ല എനിക്ക് ഒരുപാട് നേരം ബൂക്കെന്തെങ്കിലും വായിക്കുമ്പോഴോ ഫോൺ യൂസ് ചെയ്യുമ്പോഴോ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് ആ ഉറക്കം കുറവാണ് മാഡം കാരണം ഞാൻ ഓൺലൈനിലായിട്ടാണ് വർക്ക് ചെയുന്നത് അപ്പോൾ എനിക്ക് സിസ്റ്റം ആയിട്ടൊരുപാട് വർക്ക് ചെയ്യാനുണ്ട് അപ്പം അതുകൊണ്ടൊക്കെയായിരിക്കും കണ്ണാടി ഞാൻ വൺ ഇയറായിട്ട് കണ്ണാടി യൂസ് ചെയ്യുന്നുണ്ട് മാഡം ഹാ മാഡം ഞാൻ വൺ ഇയർ ആയിട്ട് ഇംഗ്ലീഷ് മരുന്ന് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതെൻ്റെ ബോഡിക്ക് സ്യുട്ടാവുമെന്ന് തോന്നുന്നില്ല എനിക്ക് മാറ്റമൊന്നുമില്ല അതേ കണക്കാണിപ്പഴും ആ മാഡം ഞാന് എൻ്റെ വീടിൻ്റെ താഴെയുള്ളൊരു ആൻറ്റി ഇതേകണക്ക് ഡോക്ടറിൻ്റെയടുത്തുവന്ന് കഴിച്ചെന്ന് പറയുന്ന കേട്ട് മരുന്ന് അതുകൊണ്ടാണ് ഞാൻ മാഡത്തിനെ പ്രീഫെർ ചെയ്തത് നല്ല ആശ്വാസമുണ്ടെന്നിപ്പോൾ പറഞ്ഞു പിന്നെ എൻ്റെ കണ്ണിൻ്റെ ചുറ്റും നല്ല ഡാർക് സർക്കിൽസ് ഉണ്ടിപ്പോൾ ഞാൻ ഒരു ഓയിൽമെൻറ്റ് ഇട്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ നല്ല രീതിക്കത് കൂടിവരുന്നുണ്ട് ഞാനൊരു ഓയിൽമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് ആദ്യം കുറച്ച് ദിവസമിട്ടപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്നു മങ്ങി എന്നാൽ ഇപ്പം അത് യൂസ് ചെയ്യ്തിട്ട് എനിക്ക് കുറവൊന്നും വരുന്നില്ല ആ ഇംഗ്ലീഷ് മരുന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പഴാണ് ആ മാഡം ഞാൻ പറഞ്ഞ ആൻറ്റിക്കും ഇതേ കണക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആൻറ്റിക്കിപ്പോൾ നല്ല കുറവുണ്ട് ഞാൻ ഈയിടക്കാണ് ആൻറ്റീനെ കണ്ടത് അപ്പം ആറ്റുകാൽ ആറ്റുകാൽ ആ അതിലാൻറ്റിയാണ് എൻ്റെയടുത്ത് പറഞ്ഞത് പക്ഷെ ആൻറ്റിക്കിപ്പോൾ നല്ല കുറവുണ്ട് അപ്പോൾ അതു കണ്ടിട്ടാണ് നല്ല റിസൾട്ട് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത് ആ മാഡം മാഡം എന്നൊക്കെ അവിടെ അവൈലബിളാണ് തിങ്കളും വെള്ളിയും ഓക്കേ മാഡം ടോക്കൺ എടുത്താൽ മതിയാകുമോ ആ ഞാൻ എങ്കിൽ തലേ ദിവസം വരുന്നതിൻ്റെ തലേ ദിവസം മാഡത്തിന്നെ വിളിക്കാം ഉച്ചവരെ കാണുകയുള്ളൂ അല്ലേ മാഡം ഓ ആ എങ്കിൽ വീട്ടിൽവരാം മാഡം കാരണം ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് ജോലിയുള്ളതുകൊണ്ട് കഴിയില്ല ഞാൻ വീട്ടില് വരാം വൈകിട്ട് ആ മാഡം വൈകിട്ട് തിരക്ക് കുറവായിരിക്കുമല്ലോ അല്ലേ ഓ മാഡം എനിക്ക് കണ്ണിന് നല്ല രീതിക്ക് വെള്ളം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് വർക്കൊന്നും കമ്പ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓ മാഡം ശരി മാഡം താങ്ക്യൂ